ആ വർഷയാണ് ആ അതെ ആ എപ്പോഴാണ് നിങ്ങളുടെ പേരെന്താണ്

ആ അതെ ഓക്കെയാണ് നിങ്ങളെവിടെയാണ് ലൊക്കേഷന് എവിടെയാണ് ചൂസ് ചെയ്തത് ഏയ് ഇല്ലയില്ല നിങ്ങള് പറഞ്ഞുകൊള്ളൂ നിങ്ങളുടെ സജഷൻ പോലെ ആ ഓക്കെ ആ നിങ്ങളെപ്പോഴാണ് ടൈം എപ്പോഴാണ് ടൈമും ഡേറ്റുമൊക്കെ പറയൂ ആ ഓക്കെ നിങ്ങളെന്നാല് ആ ഓക്കെ നിങ്ങളെന്നാല് വിളിച്ചാല് മതി നമ്മളിപ്പോള് ട്വൻറ്റി കെ അങ്ങനെയൊക്കെയാണ് പ്രീ വെഡ്ഡിംഗിന് വേണ്ടി ചെയ്യുന്നത്

അപ്പോള് നിങ്ങളുടെ ഇത് ആ ഓക്കെ അപ്പോള് നിങ്ങള്ക്ക് ബഡ്ജറ്റ് ഓക്കെയാണോ ആ ഓക്കെ വെഡ്ഡിംഗ് ഫോട്ടോ ഷൂട്ടൊക്കെയാണോ ആ ചെയ്യാം ചെയ്യാം നിങ്ങളുടെ വെഡ്ഡിംഗ് എപ്പോഴാണ് വരുന്നത് ആ ഓക്കെ നിങ്ങളപ്പോള് പ്രീ വെഡ്ഡിംഗ് എടുക്കുന്നതിന്റെയും വെഡ്ഡിംഗിൻ്റെയും ഡേയ്റ്റ് എനിക്ക് കുറച്ച് കഴിയുമ്പോള് തന്നെ വാട്സപ്പില് എനിക്ക് മെസ്സേജ് അയയ്ക്കൂ കാരണം എനിക്ക് വർക്കുണ്ട് അപ്പോള് അവര് വന്നിട്ട് അടുത്ത മന്താണെന്ന് പറഞ്ഞു അപ്പോള് നിങ്ങളെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേഗം പറയൂ കേട്ടോ ഡേറ്റ് ഫിക്സാണെങ്കില് ആ പറഞ്ഞാല് മതി ഓക്കെ ആ ശരി എന്നാല് ഓക്കെ ആ ഓക്കെ ചെയ്യാം നിങ്ങള് വിളിക്കൂ ഇല്ല ഇല്ല ഞാൻ ചെയ്തുകൊള്ളാം നിങ്ങള് വിളിച്ചാല് മതി വേഗം തന്നെ വാട്സപ്പ് ചെയ്താല് മതി ആ ഓക്കെ ഓക്കെ ആ ശരി